നീന്തലിലെപ്പോഴും നമ്മുടെ ആരോഗ്യത്തിനെയും ശാരീരിക ക്ഷമതയെയും എപ്പോഴും നല്ല ഇത് നല്ലരീതിയില് നല്ലരീതിയില് സഹായിക്കുന്നുണ്ട് കാരണം നീന്തല് നീന്തുന്നത് എപ്പോഴും നല്ലൊരു സാ ശരി ശരീരം മൊത്തം ഇളകിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശ്വസന പ്രക്രിയ കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എപ്പോഴും ശ്വാസം പിടിച്ചിട്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ശ്വസനത്തിനോടും കാരണം ചെറിയ ചെറിയ ഗ്യാപ് സന്ദർഭ ശ്വാസം എടുക്കാൻ ഗ്യാപ് കിട്ടുന്നത് അതുകൊണ്ട് ശ്വസനം എപ്പോഴും ശ്വസനത്തിന്റെ കാര്യത്തിലും ഞാ നമുക്ക് ഒരു നല്ല കാര്യമാണ് ആരോഗ്യകപരമാ ആരോഗ്യപരമായിട്ടുള്ള കാര്യം തന്നെയാണത്